ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നല്ലോ അതിൻ്റെ കൂടെ ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്യാൻ മറന്നു പോയി അതും കൂടെ എനിക്കൊന്ന് കൊണ്ടുത്തരാൻ പറ്റുമോ രണ്ട് ഓറഞ്ച് ജ്യൂസും ഒരു പൈനാപ്പിൾ ജ്യൂസും രണ്ടുമൂന്ന് കുപ്പി വെള്ളവും എനിക്ക് കൊണ്ടുത്തരണം അതിൻ്റെ പൈസ ഞാൻ വരുമ്പം തന്നു കൊള്ളാം അത് കേട്ടോ അത് നിങ്ങൾ മറന്നു പോകാതെ ചെയ്യണം അതെനിക്ക് അത്യാവശ്യമാണ് പിന്നെ അത് മറന്ന് പോകരുത് ഭക്ഷണം എപ്പോൾ കൊണ്ടുവരും എന്ന് എന്നെ ഒന്ന് വിളിച്ച് പറയണം അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ എല്ലാം പൈസ ഒന്നിച്ച് തരുന്നതായിരിക്കും കേട്ടല്ലോ മറന്ന് പോകരുത് ജ്യൂസും രണ്ടു കുപ്പി ജ്യൂസും രണ്ട് രണ്ട് ഓറഞ്ച് ജ്യൂസും ഒരു അന പൈനാപ്പിൾ ജ്യൂസും മൂന്ന് കുപ്പി വെള്ളവും ആണ് ഞാൻ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്യുന്നത് തീർച്ചയായും അത് കൊടുത്തുവിടാൻ മറക്കരുതേ അത് എനിക്ക് കൊണ്ടുതരണം അത്യാവശ്യ കാര്യമാണ് അത് ഞാൻ ഓർഡർ ചെയ്യാൻ വിട്ട് പോയതാണ് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിച്ചേർക്കണം യാതൊരു കാരണവശാലും അത് കൊണ്ടുവരാതിരിക്കരുതേ എനിക്ക് അത് അത്യാവശ്യമുള്ള സാ കാര്യമാണ് ഈ ഓർഡർ ചെയ്ത ഭക്ഷണത്തിൻ്റെ കൂടെ എനിക്ക് തീർച്ചയായും ഈ പെന്നേ ജ്യൂസും കിട്ടിയിരിക്കണം നിർബന്ധമാണ് അതിന് യാതൊരു കാരണവശാലും ഭംഗം വരുത്തരുത് പൈസ ഞാൻ എല്ലാത്തിൻറെയും കൂടെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് തരുന്നതായിരിക്കും യാതൊരു കാരണവശാലും അത് വിട്ട് പോകരുത് അതെനിക്ക് നിർബന്ധമായിട്ടും തന്നിരിക്കും തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വരുമ്പോൾ എന്നെ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നതായിരിക്കും